ഹലോ ആ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റാണല്ലോ ഇതാരാ വിളിക്കുന്നത് നിങ്ങൾക്ക് എ എ എൻ വാഴവിത്ത് വാഴ വാഴ ഇപ്പം നട്ടതേ ഉള്ളോ ആ നട്ടിട്ട് ഇപ്പോൾ എത്രനാളായി ഇപ്പം ആ ഒരു മാസമായി അപ്പോൾ നിങ്ങള് അതിന് എന്നാണ് അതിന് വളങ്ങള് കൊടുക്കാനായിരിക്കും വിളിച്ചത് അപ്പോൾ അതിൻ്റെ വ വ വ ആ വളങ്ങൾ ഇപ്പോൾ അത് ചെയ്ത് സ്റ്റാർട്ടിങ് വളം സെറാമില്ല് ഇട്ടുകൊടുക്കുക ആദ്യമേ സ്റ്റാർട്ടിങ് നമ്മള് ചാണകപ്പൊടിയൊക്കെ ഇട്ടതാണോ ചാണകപ്പൊടിയൊക്കെ ഇട്ടാണോ വെച്ചത് ആ സ്റ്റ് സെറമിൽ ഇടാം എങ്കിൽ ആ ആ ആ കുറച്ചും കൂടെ അത് ഹെൽത്തിങ്ങായിരിക്കും അതിന് എടുക്കാനായിട്ടുള്ള ഇതൊണ്ട് ചാണകപ്പൊടിയുടെ കൂടെ ഇട്ട് കൊടുക്കാമെങ്കിൽ അതിന് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഈ ഹെൽത്തിങ് ഉണ്ടാകും നല്ല വിത്തെന്ന് ചങ്ങാലിക്കോടൻ ചങ്ങാലിക്കോടൻ കുഴപ്പമില്ല ഇപ്പോഴത്തെ നല്ല ഒരു ഇതാ എത്ത വാഴവിത്താണെങ്കിൽ നിങ്ങള് ഏത്ത വാഴയാണോ ഇട്ടിരിക്കുന്നത് ഏത്തവാഴയാണോ

ആ പുഴു ശല്യം ഉണ്ടാകും കീട ആ റ്റിഷ്യൂ കൾച്ചർ വാഴയാണ് ഏറ്റവും നല്ലത് അത് ഇടുന്നതായിരിക്കും നല്ലത് കീടങ്ങളൊന്നും വരത്തില്ല റ്റിഷ്യൂ ആ ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല

കീടങ്ങള് കെ കയറി പിടിക്കത്തില്ല വല്ല ഉല്പന്നം നല്ല രീതിയിൽ ആതായം നിങ്ങൾക്ക് കർഷകർക്ക് ലാഭകരമായിട്ടുള്ള ഉല്പന്നം ഉണ്ടാവുകയും ചെയ്യും അടുത്തത് കൊ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ റ്റിഷ്യൂ കൾച്ചർ ഇനി വലുതായ ഒരു ആറ് മാസം കഴിയുമ്പഴത്തേക്കാണ് അടുത്തത് കൊടുക്കണ്ടത് ഫാക്റ്റം ഫോസും പൊട്ടാഷ് ഇത് ഇട്ടു കൊടുത്തു വിടുക കാരണം മാ മാക്സ് ഈ ഇത് ഫാക്റ്റം ഫോസും പൊട്ടാഷും ഇട്ടാലെ നമുക്ക് അതിന്റെ ഈ കാൽഷ്യങ്ങള് അതൊക്കെ കിട്ടത്തുള്ളൂ വിത്ത് വലുതാകത്തുള്ളൂ പിന്നെ ജൈവളമാണ് ജൈവ ജീവാണു വളമെന്ന് പറഞ്ഞും ഉണ്ട് ജൈവ ജയ് ആ ജൈവവളമാണ് ജൈവജീവാണു വളം ഉണ്ട് ഇപ്പോൾ മീനിൽന്ന് പറഞ്ഞ വളം നല്ല വളവാണ് മീൻ വളമല്ല മീർ മീൻ മീൻന്ന് പറഞ്ഞൊരു വളമുണ്ട് അത് നല്ല വളമാണ് ജൈവജീവാണു വളവും ജൈവജീവാണു ജീവാണു വളം ജീവാണു വളം ജീവാണു വളം അത് നല്ലതാണ് അത് നല്ല ഇത് ആ അത് നല്ല നിങ്ങള് ജൈവ കർഷകര് ജൈവ കൃഷിയാണ് ചെയ്യുന്നതെങ്കിൽ അത് ഏറ്റവും നല്ല ഒരു സക്സസ്ഫുള്ളാണ് കൂടുതല് അളവ് ചെയ്യേണ്ടി വരും ആ ആ വെക്കണം അതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് കിലോയ്ക്ക് നാ മാ മുപ്പത്തഞ്ച് രൂപായ്ക്ക് ഇവിടെ വിൽക്കുന്നുണ്ട് ജൈവജീവാണുവളം അപ്പോൾ അത് ഓരോ ഓരോ ചിരട്ട വീതം ഈരണ്ട് ചിരട്ട വീതം ഇട്ടുകൊടുക്കുക അത്രയും ചെയ്താൽ മതി ഈ റ്റിഷ്യൂ കൾച്ചറിന് മൂന്നോ നാലോ വളം ഇട്ടാൽ മതി മൂന്ന് വളം ഇട്ടാൽ മതി കൂടുതല് വളം ഇടണ്ട കാര്യമില്ല അപ്പം വാ ആ അപ്പം ആ ആ പിന്നെ നിങ്ങള് വാഴക്കുല ആ വാഴ വാഴയെ പറ്റി മറ്റെന്തെങ്കിലും സംശയം ഉണ്ടോ മറ്റെന്തെങ്കിലും സംശയങ്ങള് ആ എങ്കിൽ ശരി ഓക്കെ അപ്പോൾ അത്രയും കാര്യം ചെയ്യാം കേട്ടോ ഓക്കെ